ഹലോ ഇത് അമ്മൂസ് വെഡ്ഡിങ്ങ് അല്ലേ ആ തൃശൂരുള്ള അമ്മൂസ് വെഡ്ഡിങ് ഓക്കെ ഞങ്ങളേ സിസ്റ്ററിൻ്റെ ഒരു വെഡ്ഡിങ്ങ് വരുന്നുണ്ടേ അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു ആ ഞങ്ങളുടെ ഡേറ്റ് വരുന്നത് മെയ് ഒന്നാം തീയതിയാണ് ആ നമുക്ക് വിഡിയോയും സ്റ്റിൽ ഒക്കെയാകുമ്പോൾ റേറ്റ് എങ്ങനെയാണ് വരുന്നത് രണ്ടും കൂടിയിട്ട് ആ അപ്പോൾ എത്ര എത്ര പേരുണ്ടാവും നിങ്ങളുടെ ക്രൂ മൊത്തം നാല് പേർ ഉം നിങ്ങൾക്ക് മെയ് ഒന്നാം തീയതി ഫ്രീ ആണോ ആ പിന്നെ നമുക്ക് മെയ് ഒന്നാം തീയതി മാത്രമല്ല പിന്നെ തലേദിവസമുണ്ട് പിന്നെ സേവ് ദ ഡേറ്റുമുണ്ട് എത്ര പേരാണ് ആ ആ അതാണ് നമ്മളും ബീച്ച് സൈഡ് തന്നെയാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ മൊത്തം ഏകദേശം സേവ് ദ ഡേറ്റ് അടക്കം ട്വൻറ്റി തൗസൻഡ് എന്തായാലും വരും അല്ലേ അപ്പോൾ നിങ്ങളുടെ വർക്സ് ഒന്ന് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാൻ പറ്റുക ഓക്കെ ആ പിന്നെ അന്ന് ഈ സേവ് ദ ഡേറ്റിന് വരുമ്പോൾ ഞങ്ങൾ ഏത് കോസ്റ്റ്യൂം ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഓ റെഡ് അല്ലേ ഞങ്ങൾ വൈറ്റ് നോക്കിയാണ് ഉണ്ടായിരുന്നത് വൈറ്റ് ഓക്കെ ആണോ ആ പിന്നെ ഇപ്പോൾ റേറ്റിന് എന്തെങ്കിലും കുറയ്ക്കാനൊന്നും പറ്റില്ലേ ആ ഇതിപ്പോൾ നാല് പേർ ടോട്ടൽ ഉണ്ടാവും രണ്ടു വിഡിയോഗ്രാഫർ രണ്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും ആ അപ്പോൾ ഇവർക്കുള്ള ഫുഡ് ഒക്കെ അന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരുമോ ഓക്കെ ആ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ നിങ്ങള ഇൻസ്റ്റാഗ്രാം പേജിൽ അമ്മൂസ് വെഡിങ്ങ് എന്നാണല്ലേ ആ ഓക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തിട്ടേ വീട്ടിൽ ഒന്ന് ചോദിക്കട്ടെ എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ കൺഫർമേഷൻ പറയാം ഓക്കെ ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം വേഗം ഓക്കെ